ഇന്ന് മനുഷ്യർ സൃഷ്ടിച്ച് വിടുന്ന ഓരോ പരസ്യത്തിൽ കൂടിയാണ് പിന്നെ ആൾക്കാരെ സ്വാധിനിക്കുന്നത് അത് പിന്നെ അതിൽ എത്ര ശതമാനം സത്യമുണ്ട് എന്നുള്ളത് ആൾക്കാർ നോക്കാറില്ല പ്രതേകിച്ച് ഇന്നത്തെ യുഗത്തിൽ ഈ ഇൻറ്റർനറ്റിൻ്റെയൊക്കെ സ്വാധീനശക്തിയിൽ പിന്നെ ടീ വി യിലും മൊബൈലിലും ഒക്കെ വരുന്ന അതെല്ലാം അതിൻ്റെ പുറകേയാണ് ആൾക്കാർ പോകുന്നത് അതിൽ അത് നല്ല സാധനമാണോ ഈ പരസ്യം ചെയ്യുന്ന വസ്തു നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളാവുന്നതാണോ അതിൽ എത്രത്തോളം പിന്നെ മായം ചേർക്കാത്ത സാധനമാണ് അതൊന്നും ആൾക്കാർ നോക്കാറില്ല എല്ലാം പരസ്യത്തിൻ്റെ പുറകേയാണ് ആൾക്കാർ എല്ലാം ആൾക്കാരുടെ സൃഷ്ടിയാണ് അവർ പടച്ച് വിടുന്നത് അതുപോലെ അനുസരിക്കുന്ന കുറേ പേരുണ്ട് അത് മനസ്സിലാക്കി ഓൺലൈനിലൊക്കെ സാധനം വാങ്ങി കബളിപ്പിക്കപ്പെട്ടവരും ഉണ്ട് പിന്ന അതുകൊണ്ട് അതൊക്കെ കുറേ നാളത്തേനക്കെ പറ്റുള്ളൂ ഈ മനുഷ്യനെ പറ്റിക്കാനായിട്ട് എല്ലാ കാലവും പറ്റത്തില്ല പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏതൊക്കെ പരസ്യവഴികളിലൂടെ ആണെന്ന് ചോദിച്ചാൽ പിന്നെ ടീ വി യിൽ കാണുന്ന പരസ്യം മൊബൈല് ഇപ്പം ഇൻറ്റർനെറ്റ് ഇല്ലാത്ത ആരും ഇല്ല ഇപ്പം കൊച്ചുകുട്ടികൾക്കാണ് മുതിർന്നവരെ കഴിഞ്ഞും കൂടുതൽ ഫോണും ഇൻറ്റർനെറ്റ് ഒക്കെ ഉപയോഗിക്കുന്നത് കൊച്ചുകുഞ്ഞുങ്ങളാണ് നമുക്ക് അറിയാൻ പാടില്ലാത്തത് പലതും അവർക്ക് അറിയാം അവർ പിന്നെ നമ്മൾ ഇപ്പം മനസ്സിൽ വിചാരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇൻറ്റർനെറ്റ് വഴികളിലൂടെയൊക്കെ കുഞ്ഞുങ്ങളിലും മുതിർന്നവരിലും മുതിർന്നവരും ഇന്ന് അതിൻ്റെ അടിമയാണ് പിന്നെ ഇൻറ്റർനെറ്റിൽ കാണുന്നത് പോലെയൊക്കെ ജീവിക്കണമെന്നും അത് വഴി പണം സമ്പാദിക്കണം എന്നും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അവർക്കും പരാജയത്തിൻ്റെ പടുകുഴിയിലേക്കാണ് അവർ പോകുന്നത് എല്ലാം മൊബൈൽ വഴിയാണ് ഇന്ന് ബന്ധങ്ങൾക്ക് വിലയില്ല പിന്നെ ആഹാരം കഴിക്കുന്നത് ഇൻറ്റർനെറ്റിലും ഈ മൊബൈൽ ഒക്കെ നോക്കിയാണ് അപ്പം മൊബൈല് മനുഷ്യരെ പിന്നെ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ യുവാക്കളെ എല്ലാം ഒരു പ്രത്യേക ആകർഷണത്തിൽ വലയത്തിൽ ആക്കിയിരിക്കുകയാണ് ഇന്ന് മൊബൈൽ ഇല്ലാത്ത കാലത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും അവർക്ക് സാധ്യമല്ല ഉറക്കമെഴിച്ചാൽ ഉടനെ ആദ്യം കണ്ണ് തുറക്കുന്നതിന് മുമ്പേ മൊബൈല് തപ്പിയെടുത്തിട്ട് മൊബൈല് നോക്കുന്ന ഒരു തലമുറയാണ് ഇന്നത്തെ കാലത്തുള്ളത് അത് പിന്നെ വയസ്സ് പ്രായം നോക്കിയൊന്നും ഇല്ല പ്രായഭേദമന്യേ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം ഒരു ഇത് മൊബൈല് ഇന്ന് കേടാവുമോ ഇൻറ്റർനെറ്റ് കണക്ഷൻ കിട്ടാതിരിക്കുകയോ ചെയ്താൽ അവരുടെ ഒരു വെപ്രാളം പ്രാണവേദന അതൊക്കെ നമ്മൾ പലരിലും കണ്ടിട്ടുള്ളതാണ് അങ്ങനെ ഇൻറ്റർനെറ്റിന് ഒരുപാട് സ്വാധീനം മനുഷ്യരിൽ പ്രായഭേദമന്യേ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ പരസ്യത്തിൻ്റെ വഴിയെ പോകുന്നവർക്ക് അത് ഒന്ന് അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ഒക്കെ അബദ്ധം പറ്റുന്നവർ പിന്നെ ഇതില്ല പിന്നെ ഈ ഭക്ഷണമൊക്കെ ആണെങ്കിലും ഓൺലൈനിൽ അത് ചില പ്രതേക സാഹചര്യത്തിൽ മനുഷ്യന് അത്യാവശ്യമാണത് ഇല്ലെന്ന് പറയുന്നില്ല ഇതിൽ ദൂഷ്യഫലവും ഉണ്ട് നല്ലതും ഉണ്ട് പിന്നെ വസ്ത്രങ്ങൾ ഇന്ന് വീട്ടിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇൻറ്റർനെറ്റിൽ ഫോൺ വഴി ഓൺലൈനിൽ വരുത്തി വീട്ടിലെത്തുന്നു ഇന്നത്തെ കാലം അങ്ങനെയാണ് പിന്നെ ലോകത്തെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവം ഏത് സംഭവം ആണെങ്കിലും വെളി നാട്ടിൽനിന്ന് ഒക്കെ ആദ്യം നമുക്ക് വേണ്ടപ്പെട്ടവർ വിളിച്ച് പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അത് ഈ ഇൻറ്റർനെറ്റിൻ്റെ ഒരു ശക്തി തന്നെയാണ് അത് സമ്മതിക്കാതിരിക്കാൻ പറ്റുകേല പിന്നെ പിന്നെ മനുഷ്യനെ കബളിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ഫോൺ തന്നെയാണ് പണം പിന്നെ പല ബാങ്കുകളും പണം വഴി ഈ പണം നിക്ഷേപിച്ചിട്ട് പൊട്ടുന്നതും മനുഷ്യരെ പറ്റിച്ചുകൊണ്ട് പോകുന്നത് എല്ലാം ഇൻറ്റർനെറ്റ് വഴിയാണ് അവിടെ അതുണ്ട് ഇവിടെ ഇതുണ്ടെന്നും പറഞ്ഞ് ആൾക്കാരെ സ്വാധിനിച്ച് ഇതിലെ ഈ ഇങ്ങനെയുള്ള കളിപ്പീരിൽ വീഴാത്തവർ ചുരുക്കം ചിലരേ ഉള്ളൂ അങ്ങനെ മനുഷ്യൻ്റെ ഈ ഈ അറിവും കഴിവുമെല്ലാം ഈ ഫോണിൽ പക്ഷെ നല്ലതും ഉണ്ട് ചീത്തയും ഉണ്ട് മനുഷ്യൻ കൂടുതൽ പരാജയത്തിലോട്ടാണ് പോകുന്നത് നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന പല കാര്യങ്ങളും ഇൻറ്റർനെറ്റ് വഴി ആൾക്കാരെ കളിപ്പിക്കുന്ന് ഫോൺ വഴി പരിചയപ്പെടുകയും പ്രണയബന്ധിതരാവുകയും ഒടുക്കം മരണത്തിൽ കലാശിക്കുകയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഫോൺ വഴി കേട്ടിട്ടുണ്ട് അത് ഇവരുടെയൊക്കെ ഇതാണ് പിന്നെ പരസ്യത്തിൻ്റെ കാര്യം പറഞ്ഞാൽ പരസ്യം അവരുടെ ഒരു അവർക്കുള്ള പൈസ ചില പിന്നെ അവരുടെ വരുമാന മാർഗ്ഗമാണ് അത് അവർ എത്രത്തോളം പൊക്കി പറയാവോ അത് നല്ല ബുദ്ധിയുള്ളവരാരും ഈ പരസ്യത്തിൻ്റെ പുറകെ പോകത്തില്ല നമുക്ക് ഇപ്പോൾ ഒരു സാധനം വേണമെങ്കിൽ നമ്മൾ അത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് വാങ്ങിച്ച് നല്ലതാണെങ്കിൽ നമ്മൾ വീണ്ടും വാങ്ങും അതിന് പരസ്യത്തിനല്ല നമ്മൾ ഇവിടെ പ്രയോജനം കൊടുക്കേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് വാങ്ങുക എന്നുള്ളതാണ് അല്ലാതെ പരസ്യം കാണിച്ചാൽ ഉടനെ അത് പോയി വേടിച്ചുകൊണ്ട് പിന്നെ ആവശ്യം ഇല്ലാത്തതാണെങ്കിലും വാങ്ങിച്ച് കൂട്ടുന്ന ഒരു സംസ്കാരം ഇന്ന് കേരളത്തിലുണ്ട് അത് ഈ ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പം കണ്ടമാനം അത് വന്നിട്ടുണ്ട് അങ്ങനെ കാര്യം മനുഷ്യർക്ക് പൈസയ്ക്ക് ഒന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇന്ന് ഏത് വഴി പോയാലും പൈസ കിട്ടും എന്നുള്ളത് അറിയാം അതുകൊണ്ട് അങ്ങനെ പരസ്യവഴികളിലൂടെ ഒരു ആൾക്കാരിൽ എത്തുന്ന കൂടുതലായിട്ട് ഇത് വരുന്നത് ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ ഇതിനെ പറ്റി